മനുഷ്യരുടെ ഇമോഷണൽ ഫീലിങ്ങ്സിനെ ടച്ച് ചെയ്യുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ തന്നെയാണ് കൂടുതലും ആൾക്കരിൽ എത്തിക്കാൻ കഴിയുക എന്നുള്ളണ് എൻ്റെ അഭിപ്രായം ആ ഇപ്പോൾ കുറെ മുൻപ് ഞാൻ ഒരു പരസ്യം കണ്ടിരുന്നു അതൊരു സ്കൂട്ടീടെ പരസ്യയിരുന്നുന്നാണ് എൻറ്റെ ഓർമ്മ അതിനടുത്തൊരു മുത്തശ്ശൻ മകനെ ഒരു സ്കൂട്ടി മേടിച്ച് കൊടുക്കുന്നതും അതൊരു ബാക്ക്ഗ്രൗണ്ട് ഒരു എന്താ പറയാ നമ്മൾ പണ്ടത്തെ കാര്യം ആലോചിച്ച് ചെയ്യുന്നൊരു പരസ്യമായിരുന്നു പക്ഷേ അത് എത്രത്തോളാണ് നമ്മൾടെ ഇമോഷണൽ ഫീലിങ്സിനെ നമ്മളെ ബന്ധ റിലേഷൻസിനെക്കെ ഊട്ടിയുറപ്പിച്ച് കാണിക്കുന്നത് എന്നുള്ളത് ഭയങ്കര ഒരു ടച്ചിങ്ങായി തോന്നി ഭയങ്കര ആഷ് പുഷ് ആയിട്ട് പാട്ടുകൾ പാടി ഭയങ്കര ഹുവാ ഹുവാന്നുള്ള പരസ്യങ്ങളേക്കാളുപരി നമ്മുടെ ഇമോഷണൽ ഫീലിങ്ങ്സിനെ ടച്ച് ചെയ്യുന്ന പരസ്യങ്ങൾ തന്നെയായിരിക്കും കൂടുതൽ സർക്കുലേറ്റ് ചെയ്യുക എന്നാണ് എൻ്റെ അഭിപ്രായം